ഞങ്ങളുടേത് ഒരു ഗ്രാമ പ്രദേശമായത് കൊണ്ട് തന്നെ ഇവിടെ ധാരാളം പ്രകൃതി വിഭവങ്ങള് ലഭ്യമാണ് അതായത് മെയിനായിട്ട് പറയുകയണെങ്കിൽ നമ്മുടെ തെങ്ങ് തന്നെയാണ് തെങ്ങുകള് ധാരാളമായി കാണപ്പെടുന്ന സ്ഥലമാണ് ഞങ്ങളുടേത് അപ്പം അതുകൊണ്ടു തന്നെ ഇപ്പോൾ നമ്മുടെ വിപണിയിൽ ഏറ്റവും കൂടുതല് നമുക്ക് ആവശ്യക്കാരുള്ള ഒരു ഐറ്റമാണ് നാടന് ശുദ്ധമായ വെളിച്ചെണ്ണ എന്നു പറയുന്നത് അതുകൊണ്ടു തന്നെ ഈ തെങ്ങ് ഇന്ന് കൂടുതൽ ആയുള്ളത് കൊണ്ടു തന്നെ ഈ തെങ്ങ് തേങ്ങയില് നിന്ന് അതായത് കൊപ്രയാട്ടി ഉണ്ടാക്കിയ ചെക്കിലാട്ടി ഉണ്ടാക്കിയ ശുദ്ധമായ വെളിച്ചെണ്ണയ്ക്ക് ഡിമാണ്ട് കൂടുതലാണ് അത് ഒരു നല്ലൊരു വ്യവസായ സാധ്യതയുള്ള ഒരു ഉല്പന്നം തന്നെയാണ് അതു മാതിരി തന്നെ ഇവിടെ വാഴ കൃഷി ധാരാളമായി ചെയ്തു വരുന്നുണ്ട് അതായത് നേന്ത്ര വാഴ കൃഷി അതായത് നമുക്ക് അറിയാലോ ഇപ്പം നേന്ത്രക്കായകൊണ്ട് ഉണ്ടാക്കിയ ചിപ്സ് ഇവിടെ എല്ലായിടത്തും തന്നെ നമുക്ക് പ്രസിദ്ധമായ ഒരു ഐറ്റം ആണ് അതുകൊണ്ടു തന്നെ ഈ ചിപ്സ് ഉണ്ടാക്കാനായിട്ട് ധാരാളം ആള്ക്കാര് ബേക്കറിയില് നിന്നുമെല്ലാം ബേക്കറിക്കാരെല്ലാം ഇവിടെ വന്ന് നേരിട്ട് വാഴക്കുലകള് വാങ്ങിയിട്ട് പോകാറുണ്ട് അതുമാതിരി വേറെ ഇവിടെ വിപണന സാധ്യതയുള്ള ഒരു പ്രകൃതി വിഭവമാണ് ജാതിക്ക എന്ന് പറയുന്നത് അതായത് നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങളില് ഒന്നായ ജാതിക്ക ഇവിടെ ധാരാളമായി കൃഷി ചെയ്യപ്പെടുന്നുണ്ട് ഈ ജാതിക്ക ഉപയോഗിച്ച് നമ്മൾ പല തരത്തിലുള്ള നമ്മളുടെ ഫുഡ് ഐറ്റംസ് ഉൾപ്പെടുത്താറുണ്ട് മരുന്നിന് അത് ഉപയോഗിക്കാറുണ്ട് ഇത് നല്ല ഒരു വരുമാന മാര്ഗമായിട്ടുള്ള ഒരു ഉല്പന്നം തന്നെയാണ് ഈ ജാതിക്ക എന്ന് പറയുന്നത്